എനിക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അങ്ങനെയുള്ള പലതരത്തിലുള്ള ചിത്രങ്ങൾ വരക്കാൻ ഇഷ്ട്ടമാണ് അതായത് പഴയകാലത്തുള്ള പല ആചാരങ്ങളും അതുപോലെ പഴയ രീതിയിലുള്ള രീതിയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അവരെ വസ്ത്രധാരണ രീതികളെ പറ്റിട്ടും അതുപോലെ വയലുകൾ വീടുകൾ പുല്ലുകൾ അങ്ങനെയുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ വരാക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം പക്ഷേ അല്ലാതെയുള്ള രവിവർമ്മെനെ പോലെ വരയ്ക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാൻ ഇഷ്ട്ടമാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ ഇഷ്ട്ടം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഏറ്റവും കൂടുതലിഷ്ട്ടം ഞാൻ കൂടുതലും വരയ്ക്കാറുള്ളതും അങ്ങനെയുള്ള ചിത്രങ്ങളാണ് പിന്നെ അത് കൂടുതലും ഒരു നാച്ചുറൽ ലുക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള പിക്ച്ചെ പിക്ച്ചറുകൾ വരയ്ക്കുമ്പോൾ അതുപോലെ പഴയ കാലത്തെ പല ഓർമകളും നമുക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ പഴയകാലങ്ങളിലുള്ള പലതും ഓർക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പലരും അത് കാണുന്ന സമയത്ത് അവർക്ക് പഴയകാലത്ത് നമ്മൾ കണ്ട പഴയ കാലത്ത് നടന്ന സംഭവങ്ങളിലായിട്ട് അതു ആയിട്ട് മാച്ച് ചെയ്യുന്നതുപോലെ തോന്നാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ട്ടം